എൻ്റെ അറിവിൽ അങ്ങനെ ഗൂഗിൾ പേ ഫോൺ പേ ഒന്നും പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങൾ ആയിട്ട് നേരിട്ട് ഒന്നും ഞാൻ ഇതു വരെ കേട്ടിട്ടില്ല കൂടുതൽ പൈസയുടെ ട്രാൻസാക്ഷൻ നടത്തുന്ന ടൈമിൽ കുറച്ച് ഒരു ബഗ്ഗ് അടിക്കുന്നുണ്ടെന്നുള്ള

ഞാൻ ഫോൺ ജി പേ യാ യൂസ് ചെയ്യുന്നത് വേറെ പ്രശ്നമായിട്ടുള്ളതു പോലെയൊന്നും തോന്നിയിട്ടൊന്നും ഇല്ല സേഫ് ആയിട്ട് തന്നെയാണ് പൈസ ഒക്കെ ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യുന്നത് പക്ഷേ ഈ ഒരു പ്രശ്നം മാത്രമേ ഇപ്പോൾ നിലവിൽ ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളു വേറെ കുഴപ്പമായിട്ട് ഒന്നും തോന്നുന്നില്ല ബാക്കിയൊക്കെ ഓക്കേ ആണ് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ദൂരെയുള്ള ആൾക്കൊക്കെ പൈസ അയച്ചുകൊടുക്കാൻ അതെല്ലാം ഒരു ഉപയോഗമുള്ള കാര്യമാണ് ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ പീടികേലൊക്കെ ആയിട്ട് ഇങ്ങനെ പൈസയൊന്നും കൈയിൽമേൽ ഇല്ലെങ്കിൽ ഒക്കെ അയച്ചു കൊടുക്കാം അതിപ്പോൾ ആരെങ്കിലുമൊക്കെ പീടികയിൽ പറഞ്ഞായിച്ചിട്ട് പൈസ അങ്ങനെയൊക്കെ അയച്ചു കൊടുക്കാം അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ നല്ലത് ആയിട്ട് തോന്നിയിട്ടുണ്ട് വേറെ ഇങ്ങനത്തെ വലിയ പ്രശ്നമായിട്ട് ഒന്നും തോന്നിയിട്ടൊന്നുമില്ല